ഈ പ്രദേശത്ത് നാടോടി ഗാനങ്ങളെക്കുറിച്ച് പറയുവാണെൽ പൊതുവേ നാടന് പാട്ടുകള് അത് ഒരു ശൈലിയായി പാടാറുണ്ട് ചിലര് നാടന്പാട്ടുകളോട് പ്രത്യേക ഇഷ്ടം കാട്ടാറുണ്ട് ഇവിടെനിന്നും റിസര്വേയറിന് അപ്പുറത്തേക്ക് കടന്ന് ആദിവാസി മേഖല ഉണ്ട് അവിടെ കാണി സമുദായക്കാര് അവരുടേതായിട്ടുള്ള ചില നാടോടി ഗാനങ്ങള് അവരുടെ ചാറ്റ് പാട്ട് പോലെയുള്ള നാടോടി ഗാനങ്ങള് അവർ ചില വേദികളില് ആലപിക്കാറുണ്ട് മറ്റ് പറയത്തക്ക നാടോടി ഗാനങ്ങളൊന്നും ഈ പ്രദേശത്തുള്ളവര് പൊതുവെ അങ്ങനെ പാടാറില്ല പിന്നെ റേഡിയോ നവ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന നാടോടി ഗാനങ്ങൾ പൊതുവെ ഈ പ്രദേശത്തുള്ളവര് ഇഷ്ടപ്പെടുന്നു എനിക്ക് ആ നാടോടി ഗാനങ്ങളോട് പൊതുവേ ഈ പ്രദേശത്തുള്ളവർക്ക് വലിയ താല്പര്യമൊന്നും കൂടുതലായി കാണ ട്ടാറില്ല